ഉഡുപ്പി റെസ്റ്റോറൻറ്റ് അല്ലേ എനിക്ക് കുറച്ച് ഭക്ഷണം നിങ്ങളെ ആവശ്യമുണ്ടായിരുന്നു പിന്നെ ഒരു ഫംഗ്ഷൻ ആണ് അപ്പം ഒരു ഒരു രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഒക്കെ വേണം പിന്നെ വൈകുന്നേരത്തേതും വേണം അപ്പോൾ രാവിലെ ഒരു എട്ടുമണി ആവുമ്പോളത്തേക്കും എത്തണം പിന്നെ കുറച്ച് രാവിലെ എന്തെങ്കിലും ഒരു വെള്ളയപ്പമോ അങ്ങനെ ഗ്രീൻ പീസ് കറിയോ അങ്ങനെയെന്തെങ്കിലും ഒക്കെ കിട്ടിയാൽ മതി പിന്നെ നല്ല ഭക്ഷണം ആയിരിക്കണം അല്ലെങ്കിൽ മോശം ആക്കിയിട്ടൊന്നും കൊണ്ടുവരാൻ പാടില്ല പിന്നെ ഉച്ചയ്ക്ക് സാദാ ഒരു ബിരിയാണിയും പിന്നെ സാദാ വെജിറ്റബിൾ ഐറ്റംസ് എല്ലാം വേണം വൈകുന്നേരം ചപ്പാത്തി പൊറോട്ട അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും എല്ലാം വേണം പിന്നെ പിന്നെ എൻ്റെ അഡ്രസ്സ് പറഞ്ഞു തരാം കല പിന്നെ തോണിച്ചാൽ തോണിച്ചാൽ മാനന്തവാടി അതാണ് എൻ്റെ അഡ്രസ്സ് അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി നമ്പറിൽ ആ നം പിന്നെ നമ്പർ ഞാൻ തന്നിട്ടുണ്ടല്ലോ ആ നമ്പറിൽ വിളിച്ചാൽ മതി ഇത്രയും സാധനങ്ങൾ വൈകുന്നേരം ഒരു വൈകുന്നേരത്തേത് അഞ്ചുമണി അഞ്ചരയ്ക്ക് ഉള്ളിൽ എത്തണം